നിലവിലുള്ള ചെടികളിൽ നിന്നും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ എന്താണ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇപ്പം ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അത് വളർന്നിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതായത് വെട്ടി കൊടുക്കണം അതിന് ഒരു ചെടി ഓരോ ചെടികൾക്കും ഓരോ ഇത് ഉണ്ട് അതായത് പിന്നെ നമ്മൾ പിന്നെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതായത് അത് നല്ലവണ്ണം വളരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് വെട്ടണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നല്ലവണ്ണം വല വളരാൻ പറ്റൂ അതായത് നല്ലവണ്ണം അത് വളർന്ന് വരികയുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശോഷിച്ച് പോകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ റോസാ ചെടി കാര്യങ്ങളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് നല്ലവണ്ണം പൂവ് എല്ലാം വിരിഞ്ഞ് പൂവ് വാടി തുടങ്ങുമ്പോൾ നമ്മൾ ആ പൂവ് വെട്ടി കളയണം പൂവ് വെട്ടി കളഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ തളിർപ്പും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെടി നല്ലവണ്ണം പരിപാലിക്കാൻ പറ്റില്ല പിന്നെയെന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് ചെടിയും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമല്ലോ ആ പ്ലേറ്റ് ചെടി അങ്ങനെയുള്ള ചെടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതായത് അത് ഇങ്ങനെ വലിയ ആദ്യം ഒക്കെ നല്ല ഭംഗിയുണ്ടാകും പിന്നെ പിന്നെ അത് വ ലുതായി വലുതായി ഭയ ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങും അപ്പം നമ്മൾ അതിൻ്റെ കമ്പുകൾ ഒക്കെ വെട്ടിയിട്ട് വേറെ വേറെ സ്ഥലത്ത് കൊണ്ട് നടണം അങ്ങനെ നട്ടിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം അത് പിടിക്കുകയും ചെയ്യുകയുള്ളൂ